റെഡിമെയ്ഡ് വസ്ത്രങ്ങളും കൈകൾ കൊണ്ട് തുന്നുന്ന വസ്ത്രങ്ങളുമായിട്ടുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ റെഡിമെയ്ഡ് വസ്ത്രങ്ങൾ നമ്മൾ വാങ്ങിയാൽ നമുക്ക് ശരീരത്തിന് ഇണങ്ങിയ രീതിയിൽ കിട്ടില്ല അതേ സമയം നമ്മൾ തുണിയെടുത്ത് അളവെടുത്ത് തുന്നിക്കുന്ന ഒരു വസ്ത്രമാണെങ്കിൽ നമ്മുടെ ശരീരത്തിന് എപ്പോഴും ചേർന്നിരിക്കും നെയ്ത് ഉണ്ടാക്കുന്നതും അതുപോലെ തന്നെയാണ് മനുഷ്യർക്ക് എപ്പോഴും ശരീരത്തിന് യോജിച്ച രീതിയിൽ നിർമ്മിച്ച് കിട്ടുന്നത് നമ്മൾ തുന്നി ഉണ്ടാക്കുന്ന വസ്ത്രങ്ങൾ തന്നെയാണ് അതുകൊണ്ട് കൂടുതല് പേരും റെഡിമെയ്ഡ് വസ്ത്രങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നു കൈകൊണ്ട് നിർമ്മിച്ച വസ്ത്രങ്ങളാണ് എല്ലാവർക്കും ഇഷ്ടമാകുന്നത് അവർക്ക് കൂടുതൽ താൽപര്യം അത് ധരിക്കാനാണ് അതുകൊണ്ട് ആ വസ്ത്രങ്ങൾ കൂടുതലും ഉപയോഗിക്കാൻ ഇഷ്ടപ്പെടുന്നു